അ ഹലോ ആണോ എന്നാ കൃത്യമായിട്ട് നിങ്ങൾ വരുന്ന ടൈം ഏതു ഡേറ്റിലേക്കാണ് ആ അഞ്ചു ദിവസത്തേക്കാണോ അ ഏകദേശം എത്രപേര് വരുന്നുണ്ടാവും അഞ്ച് പേര് അല്ലേ അപ്പം എങ്ങനെ റിസോർട്ടാണോ നോക്കുന്നത് അ അഞ്ചു പേരാണോ വരുന്നത് നിങ്ങൾ അത് കിഡ്സിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് പിന്നെ കുറച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് എങ്കിൽ ടു തൗസൻഡ് വരുന്നുണ്ട് ആണോ ആ അഞ്ചു പേര് അല്ലേ നിങ്ങൾ എവിടെ എങ്കിലും ലൊക്കേഷൻ അ ലൊക്കേഷനൊക്കെ നോക്കിയിട്ടുണ്ടോ എവിടെയൊക്കെയാണ് വരണേ അ ഞങ്ങൾ ഇവിടെ ഒരു ഗൈഡിനെ അലോട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഫുഡ് ആൻഡ് അക്കൊമൊഡേഷൻ ഒക്കെ നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും അത് നിങ്ങൾ തന്നെ അത് ആക്കേണ്ടി വരും അവർക്കും കൂടിയുള്ളത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും അ ഗൈഡിൻ്റെ മാത്രം അ ആൾ ഫുള്ള് സ്ഥലമൊക്കെ കാണിച്ചു തരും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും അതൊക്കെയാവുമ്പോൾ കുറച്ചു കൂടി സ്ഥലങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾ ആദ്യമായിട്ടാണോ വയനാട് വരുന്നത് അ അപ്പം ഗൈഡ് ഉള്ളതായിരിക്കും നല്ലത് കുറച്ചു കൂടി ബെറ്റെർ അതായിരിക്കും അത് ഒന്ന് മാനേജറിൻ്റെ അടുത്ത് ഞങ്ങള് സംസാരിക്കേണ്ടി വരും കാരണം ഇങ്ങനെയാണ് കുറച്ചു കൂടി ഡീറ്റൈലായിട്ട് പുള്ളിൻ്റെ അടുത്ത് സംസാരിക്കണം അ അതൊക്കെയുണ്ട് അത് ഒരു ദിവസമേ ഉണ്ടാവുള്ളു അഞ്ചു ദിവസമാണെങ്കിൽ ഒരു നൈറ്റേ ഉണ്ടാവുള്ളു കേട്ടോ

അ ബാക്കി ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്യാം ഞാൻ അ ഓക്കെ